കാലക്രമേണ മലയാള ഭാഷയ്ക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് മലയാളഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം തന്നെ വളരെ കുറവാണ് അവർ സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ ഇടയ്ക്ക് അന്യഭാഷകൾ ഒക്കെ കേറി വരികയാണ് അതുമല്ല ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും അന്യഭാഷ അല്ലെങ്കിൽ വിദേശ ഭാഷകളൊക്കെ പഠിക്കാനാണ് ഇഷ്ടം അങ്ങനെ കൂടുതൽ ആൾക്കാരും പുറത്തേക്കൊക്കെ പോയി അന്യസംസ്ഥാനങ്ങളിലും വിദേശത്തുമൊക്കെ പോയി പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോയി അവിടുത്തെ സ്ഥലവുമായിട്ട് ഇടപഴകിയവർക്ക് ഇവിടെ വന്ന് പിന്നീട് ആ ഒരു മലയാളം സ്ലാങ്ങ് സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കുഞ്ഞു കുട്ടികളായിക്കോട്ടെ കുഞ്ഞു കുട്ടികൾ വരെ ഇപ്പോൾ മലയാളം സംസാരിക്കുന്നത് വളരെ കുറവാണ് എല്ലാവരും അതായത് കുട്ടികളുടെ അമ്മമാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ അവരുടെ മാതാപിതാക്കൾ അവരെ എപ്പോഴും സി ബി എസ് ഇ സ്കൂൾ അതുപോലുള്ള സ്കൂളുകളിലൊക്കെ വിടുമ്പോഴത്തേക്ക് അവിടെയൊക്കെ തന്നെ നല്ല നിയമാവലിയാണ് മലയാളം സംസാരിക്കരുത് ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയൊക്കെ ആണെങ്കിലും ഉള്ളത് അപ്പോൾ ഇന്നത്തെ കാലത്ത് കുഞ്ഞു കുട്ടികൾ വരെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ആണ് സംസാരിക്കുന്നത് മലയാളം ചില വാക്കുകളുടെയൊക്കെ മീനിങ് ചോദിച്ചാൽ പോലും പലർക്കും അറിയില്ല